ഓ എൻ്റെ ജീവിതവത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ വില കല്പിക്കുന്നതെന്നു പറഞ്ഞാൽ എൻ്റെ കുടുംബത്തിനാണ് അപ്പോൾ നമ്മുടെ കുടുംബം പിന്നെ അതു കഴിഞ്ഞാൽ ഫ്രെന്റ് സ് അങ്ങനത്തെ അതാണ് നമുക്ക് ഏറ്റവും വലുത് അവർ അവരാണ് നമ്മുടെ കുടെയുണ്ടാവുക എല്ലാ കാലവും കാലാകാലം നമ്മുടെ കുടെയുണ്ടാവുന്ന രണ്ട് കാര്യങ്ങളായിരിക്കും അവർ അപ്പോൾ കുറേ പൈസ ഉണ്ടാക്കി അതുകൊണ്ടൊന്നും ഒരു കാര്യവുമില്ല നമുക്ക് കുറേ കുറച്ചധികം ബന്ധങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അതാണ് നമുക്ക് നിലനിൽക്കാൻ പറ്റുന്നത് അല്ലെങ്കിൽ നിലനിൽക്കുന്ന ഒരു വസ്തുത എന്ന് പറയുന്നത് അത് മാത്രമാണ് നമ്മൾക്ക് ഇപ്പോൾ വെറുതേ ഒരാളുമായിട്ട് വഴക്കുണ്ടാക്കുക അങ്ങനെ വഴക്കുണ്ടാക്കാനും ഒഴിവാക്കി വിടാനൊക്കെ പെട്ടന്ന് പറ്റും അത് മറിച്ച് ഇപ്പോൾ ഒരാളുടെ ബന്ധം നിലനിർത്തുക അയാളുമായിട്ടുള്ള സൗഹൃദം നിലനിർത്തുക അയാളുമായിട്ട് അയളെ എപ്പോഴും നമ്മൾ എന്താ പറയുക നമ്മുടെ കുടെയുണ്ടാമെന്നുള്ളൊരു അവസ്ഥയിലേക്കെത്തിക്കുകയെന്നൊക്കെ പറഞ്ഞാൽ അത് കുറച്ച് ബുദ്ധിമുട്ടാണ് പെട്ടന്ന് ഒരു വാക്കിലോ ഇതുകൊണ്ടോ നമ്മുക്കൊരാളെ ഒഴിവാക്കി വിടാൻപറ്റും അതേമറിച്ച് നമ്മളെ ഒരാളുടെ നമ്മളെ കുടെയുണ്ടാവണം നമുക്ക് ലൈഫ് ലോങ്ങ് ആയാളുടൊപ്പം ഇപ്പോൾ സൗഹൃദമായാലും ജീവിത പങ്കാളിയായാലും അങ്ങനൊക്കെ എങ്ങനെ എങ്ങനെ നോക്കുകയാണെങ്കിലും അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് നമുക്ക് പെട്ടന്ന് ഒരാള് അങ്ങനെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നുവരിക അല്ലെങ്കിൽ അവര് നമ്മുടെ കൂടെ ഉണ്ടാകുമെന്നൊന്നും പറയാൻ പറ്റില്ല ഇപ്പോൾ നമ്മളെ ജീവിതത്തില് ഓരോ ദിവസവും കുറേ ആളുകള് നമ്മള് കണ്ടുമുട്ടുന്നുണ്ടാവും അങ്ങനെ അതുകൊണ്ടൊന്നും പക്ഷേ അവരൊന്നും നമ്മുടെ ജീവിതത്തിലൊരു ഒരു ഒരു കുറച്ച് കാലം ഇപ്പോൾ കൂടിപ്പോയിക്കഴിഞ്ഞാൽ കുറേ ആൾക്കാര് ഒരു നാല് മാസം അല്ലെങ്കിൽ ഒരു ആറ് മാസം ചിലത് രണ്ട് കൊല്ലം കുറേ ചില ബന്ധങ്ങളുണ്ട് നമുക്ക് ആജീവനാന്തം നമ്മൾ മരിക്കുന്നത് വരെ നമ്മുടെ മരണം വരെ നമ്മുടെ കുടെയുണ്ടാവും തോന്നണ ചില ബന്ധങ്ങളുണ്ട് അങ്ങനെ ചില ബന്ധങ്ങളുണ്ടാക്കണമെങ്കിൽ നമ്മള് അവരുമായിട്ട് നല്ല സൗഹൃദത്തിലായിരിക്കണം നമ്മുടെ നമ്മൾ അവരെ നമ്മൾ വിശ്വസിക്കണം നമ്മുടെ കാര്യങ്ങളൊക്കെ അവരെ അടുത്ത് പറയണം അവര് കാര്യങ്ങള് നമ്മള് കേൾക്കണം അവരുമായിട്ടുള്ള ബന്ധം നിലനിർത്തണം വഴക്കുണ്ടാക്കാൻ പാടില്ലായെന്നല്ല അത് നമുക്ക് വഴക്കുണ്ടാവും സ്വാഭാവികമാണ് മനുഷ്യന്മാരായത് കൊണ്ട് വഴക്കുണ്ടാവും പക്ഷേ നമുക്കതൊന്നുമില്ലെങ്കിൽ അതിലെന്താണ് പ്രശ്നങ്ങള് നോക്കീട്ട് വിട്ടുവീഴ്ച ചെയ്യാനുള്ളതാണെങ്കിൽ വിട്ടുവീഴ്ച ചെയ്ത് കൊടുക്കണം അവരുടെ ഭാഗത്താണെങ്കിൽ അത് അവരെ പറഞ്ഞ് മനസ്സിലാക്കണം അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും നമുക്കൊരു ഇങ്ങനൊരു മനോഭാവമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ ബന്ധങ്ങള് നിലനിർത്താൻ പറ്റുകയുളളൂ